ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സന്തോഷവും അഭിമാനകരവുമായിട്ടുള്ള ഒന്നാണ് നമ്മടെ എസ് എസ് ജി ഗ്രൂപ്പുകൾ കാരണം പണ്ട് സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങാനോ പത്തുപേരോട് മിണ്ടാനോ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു എന്നാൽ ഇന്ന് പുരയ്ക്കകത്തോട്ട് ഇരിക്കാനായിട്ട് സ്ത്രീകളെ കിട്ടുന്നില്ലയെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം എങ്കിൽ എന്നിരുന്നാലും ഒരു സ്ത്രീ എന്താകണം അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ നിലനിൽക്കേണ്ടതെന്ന് അവൾ തെളിയിക്കുന്നത് അവൾ ആയിരിക്കുന്ന ഇടങ്ങളിലുള്ള അവളുടെ പെരുമാറ്റങ്ങളാണ് ഇന്ന് ഏത് സ്ത്രീകളെയും ഏത് മേഖലകളിൽ ചെന്നാലും കണ്ടെത്താൻ സാധിക്കുന്നത് അയൽക്കൂട്ടങ്ങൾ പോലെയുള്ള ഈ എസ് എസ് ജി ഗ്രൂപ്പുകളാണ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വിസമ്മതിച്ചിരുന്ന ഒരു സ്ത്രീയ്ക്ക് അല്ലെങ്കിൽ പത്തുരൂപ കാശുണ്ടാക്കാൻ അറിവില്ലായിരുന്ന ഒര് സ്ത്രീയ്ക്ക് അറിവും അതിനു വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഇതുപോലെയുള്ള അയൽക്കൂട്ടങ്ങളാണ് ഇന്ന് ഒരു സ്ത്രീ പോലും വീട്ടിൽ ഒരു പൈസ പോലും ഉണ്ടാക്കാത്ത സ്ത്രീകളായിട്ടില്ല കാരണം അവർ എല്ലാവരും ഏതെങ്കിലുമൊക്കെ അയൽക്കൂട്ട ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം പത്ത് രൂപ കാശ് നമുക്ക് നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കണമായിരുന്നു എന്നാൽ ഇന്ന് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് സ്ത്രീ വളർന്നു എന്നുള്ളതാണ് എസ് എസ് ജി ഗ്രൂപ്പുകളിൽ നിന്ന് ഉള്ള ഏറ്റവും വലിയ പ്രയോജനം ഏത് മേഖലകളിൽ ചെന്നാലും സ്ത്രീകൾ ഇന്ന് വളരെയധികം വലിയ സാന്നിധ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം സ്ത്രീകൾ കയറാത്ത മേഖലകളില്ല തെങ്ങുകയറ്റത്തിനാണെങ്കിലും ഒരു അദ്ധ്യാപക അദ്ധ്യാപിക ആയിട്ടാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാകണമെങ്കിലും ഒരു ഈ സ്കൂളിലെ തൂപ്പുകാരി ആകണമെങ്കിലും ഒരു അമ്മയാകണമെങ്കിലും ഭാര്യയാകണമെങ്കിലും സ്ത്രീയ്ക്കിന്ന് അനായാസം സാധിക്കുമിന്ന് ഒരേസമയം എത്ര ജോലികൾ വേണമെങ്കിലും ചെയ്യാനായിട്ട് സ്ത്രീ ഇന്ന് തയ്യാറാണ് അതോടൊപ്പം അവരിലുള്ള ആത്മവിശ്വാസം തയ്യാറാണ് പത്ത് മനുഷ്യരുടെ മുമ്പിൽ എണീറ്റ് നിന്ന് നിൽക്കാൻ പോലും വിസമ്മതിച്ചിരുന്ന സ്ത്രീ ഇന്ന് നൂറ് മനുഷ്യരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിന്ന് അവർക്ക് ക്ലാസ്സെടുക്കുവാനും അവരുടെ ചോദ്യങ്ങൾക്കുത്തരം കൊടുക്കുവാനും വളരെ സാമ്പത്തിക ശേഷിയിൽ വളരുവാനും ഇന്ന് സ്ത്രീയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ഒരൊറ്റ സഹായത്തോടു കൂടിയാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം ഞാനും ആ ഗ്രൂപ്പുകളിലെ ഒരാളായി നിന്നുകൊണ്ട് എനിക്കും ഇന്ന് ഈ ഇന്ന് ഈ സമൂഹത്തിൽ ഉയർന്നുനിന്ന് അന്തസ്സോടെ പറയാൻ സാധിക്കും എസ് എസ് ജി ഗ്രൂപ്പുകളാണ് എന്നെ ഇങ്ങനെ വളർത്തിയതെന്ന് കാരണം അതിലൂടെയാണ് ഞാൻ ഞാനായി തീർന്നത് ഞാൻ എന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചത് ഈ ഗ്രൂപ്പുകളിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് അത്കൊണ്ട് എസ് എസ് ജി ഗ്രൂപ്പുകൾ സ്ത്രീകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്നുണ്ട് സ്വയംപര്യാപ്തത നേടാൻ ഇന്ന് സ്ത്രീ ആരും അപലകളല്ല ചപലകളല്ല അവൾക്ക് എല്ലാവിധ സ്വാതന്ത്രങ്ങളുമുണ്ട് അവൾ കേരളത്തിൽ ഒരു ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അവൾ ആയിരിക്കുന്ന ഇടത്ത് ഇന്നവൾ സ്ത്രീ ശക്തി ആണ് അവൾ നല്ല അവളുടെ നല്ല സാന്നിധ്യം കൊണ്ട് നിറസാന്നിധ്യം അവളിന്ന് തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് എസ് എസ് ജി ഗ്രൂപ്പുകൾ അഭിമാനത്തോടെ പറയാൻ പറ്റും ഒരു സ്ത്രീയ്ക്ക് അവൾ അവളെന്താണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് മറ്റുള്ളവരിലേക്ക് കാണിച്ച് കൊടുക്കാനായിട്ട് അന്തസ്സായിട്ട് നിലനിൽക്കാനായിട്ട് ഈ ഗ്രൂപ്പാണ് അവർക്ക് സഹായിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൽ സന്തോഷം